ഹലോ ഹൈലൈറ്റ് മാളിലെ റെസ്റ്റോറൻ്റ് അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം ഞാൻ അവിടെനിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഓർഡർ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എന്ത് ചെയ്തു എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കസിൻസ് ഇപ്പം ഇല്ല അവർ പെട്ടെന്ന് എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ അവർ പോയി ആ ആ അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് കൂടുതൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഞാൻ ഓർഡർ ചെയ്തത് അഞ്ച് ചിക്കൻ ബിരിയാണിയും മൂന്ന് അതായത് ബീഫ് ബിരിയാണിയും പിന്നെ പത്ത് പൊറോട്ട പത്ത് ചപ്പാത്തി അങ്ങനത്തെ പിന്നെ കറികൾ കാര്യങ്ങളൊക്കെയായിരുന്നു ഓർഡർ ചെയ്തത്

ആ ഓക്കെ ഓക്കെ അപ്പോൾ അതൊന്ന് അതിൽ ഒരു പത്ത് ചപ്പാത്തി വേണ്ട അതിൽ ഒരു അഞ്ച് ചപ്പാത്തിയും അഞ്ച് പൊറോട്ടയും മാത്രം മതി ആ ഓക്കെ ഓക്കെ ആ കറി അതിനനുസരിച്ചുള്ള കറി മാത്രം മതി ഓക്കെ ആ ഓക്കെ ഓക്കെ ആ എന്നിട്ടൊന്ന് കൊണ്ടുത്തന്നെ ഒക്കെ എന്നാൽ ആ ശരി